കായികവിനോദങ്ങള് നമുക്ക് പറയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് എൻജോ മനസ്സിന് അല്ലെങ്കിൽ ബോഡിക്കൊക്കെ നല്ലൊരു എൻജോയ്മെന്റ് മൂഡ് ഭയങ്കര നമുക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് സംഭവം ആണ് അതായത് കളിക്കുമ്പോൾ നമ്മൾ വേറെ ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കളിയിൽ നമ്മള് ഫുള്ള് മൈൻഡും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് വേറെ അതിലെ ആ സമയത്ത് നമുക്ക് വേറെ ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം വേറെ നമ്മള് ചിന്ത എവിടേക്കും പോവില്ല ഫുൾ ടൈം ആ ഒരു എൻജോയ്മെൻറ് മൂഡും കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനസ്സിന് ഒരു കുറച്ചു നേരം ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കളിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടുന്നപോലെ നമ്മുടെ കൈ മറ്റേ എന്ത് ഏത് കളിയായാലും ഇപ്പോൾ നമ്മുടെ കായികം നമ്മടെ കൈയും കാലും ഒക്കെ ഒന്ന് അനങ്ങി നമ്മുടെ ബോഡി ഒക്കെ ഒന്ന് ഇളക്കി അത്യാവശ്യം റെഡിയാവാനും പിന്നെ എന്താ പറയുക പെട്ടെന്ന് അങ്ങ് ബോഡിക്ക് നല്ലൊരു ഫിറ്റാവാനൊക്കെ ഉള്ള സംഭവം നമുക്ക് ഈ കായിക വിനോദങ്ങൾ വഴി നമുക്ക് കിട്ടുന്നുണ്ട്